സ്കൂളിൽ പഠിക്കുമ്പം വിനോദയാത്ര പോയിട്ടുണ്ട് അന്ന് നമ്മൾ വണ്ടർലായിലാണ് പോയത് എറണാകുളത്ത് അപ്പം രാവിലെ പോയി കൂട്ടുകാരെല്ലാവരുമായിട്ടാണ് പോയത് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് രാവിലെ അവിടെ ചെന്ന് ടിക്കറ്റെടുത്ത് അവിടുത്തെ കുരങ്ങനെയൊക്കെ കണ്ട് അകത്ത് കയറി എന്നിട്ട് കുറെ റൈഡിൽകയറി അപ്പം ഈ മോൺസ്റ്റർ റൈഡും സ്പേസ് ഗണ്ണുവൊക്കെ ആ സമയം വരുന്ന ഒരു ടൈമായിരുന്നു നമ്മൾ കുറച്ച് ചെറുതായോണ്ട് നമ്മളെ അവിടൊന്നും കയറ്റത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ പൂളിലൊക്കെ പോയി പൂളിൽ തന്നെ അഞ്ചാറ് വട്ടം മുങ്ങിപ്പോയി അങ്ങനെ പൂള് അങ്ങനായിരുന്നു പിന്നെ അതു കഴിഞ്ഞ് ഓർക്കുമ്പോൾ കുറച്ച് കൂടെ ഹൊറിബിളായിട്ട് തോന്നുന്നത് ഫ്ലയിങ് സ്വാൻ്റെ റൈഡായിരുന്നു ഭയങ്കര ഓർക്കാൻ താൽപ്പര്യമില്ലാത്ത ഒന്നായിരുന്നു പിന്നെ കൂട്ടുകാർ എല്ലാവരുമായിട്ട് അവിടെല്ലാം പോയോണ്ട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചു ഫുഡ് കൊള്ളത്തില്ലായിരുന്നു അതോണ്ട് പിന്നത് കഴിഞ്ഞ് നമ്മളവിടെ അവിടെ കടൽന്ന് പറഞ്ഞ പോഷൻ ഉണ്ട് അവിടെ ഇങ്ങനെ കടൽന്നാണ് പറയുന്നത് അത് വേവിൻ്റെ ഇതാണ് നമ്മളവിടെ ചെന്ന് ഇറങ്ങി ഇപ്പം നമ്മുടെ ഫുഡും ആ വെള്ളം എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞപ്പോൾ മുടിയുടെ ഇതക്കെ അങ്ങ് മാറും അതങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിങ്ങായിരുന്നു പിന്നെ ആ കൂട്ടുകാരായിട്ട് പോയത് കൊണ്ട് നല്ലൊരനുഭവമാണ് പക്ഷേ ഒന്നും കൂടെ പോകാൻ അവിടെ പോകാൻ താൽപ്പര്യം ഇല്ല പിന്നെ ഇവിടെ എക്കോ ടൂറിസം പോയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരുടെ കൂടെ വളരെ നല്ലൊരനുഭവമായിരുന്നു അന്ന് ആ പാറക്കല്ലിൻ്റെ അടുത്ത് കൂടേയും കുട്ട വഞ്ചീലക്കെ കയറി ഇങ്ങനെ ആ കാട്ടിൽക്കൂടെ പോയി അവിടെ മലമ്പാമ്പുണ്ടായിരുന്നു പിന്നെ അതു കഴിഞ്ഞ് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി അവിടുത്തെ പാറയൊക്കെ ഭയങ്കര വഴുക്കലാണ് ആ പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ അടുത്ത് വെള്ളച്ചാട്ടം ഭയങ്കര രസമാണ് കാണാൻ ഒരുപാട് പോപ്പുലറല്ലാത്ത സ്ഥലമായത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരൊന്നും വരില്ല അപ്പം നമുക്ക് കൂടുതൽ അവിടെ ഇരുന്നു എൻജോയ് ചെയ്യാമ്പാറ്റും പിന്നെ കൂട്ടുകാരായിട്ട് പോയോണ്ട് നല്ലൊരു സ്ഥലമായിരുന്നു അത് പിന്നെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിട്ടുണ്ട് ആ അങ്ങനൊക്കെ കുറേടുത്ത് പോയിട്ടുണ്ട് എല്ലാം കൂട്ടുകാരുടെ കൂടെയാണ് പോയിരിക്കുന്നത് നല്ല അനുഭവമായിരുന്നു